ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് എൻ്റെ കുട്ടിക്കാലം മുതലാണ് എൻ്റെ ചേട്ടനെ കണ്ടാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് അതുകൊണ്ടുതന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ എന്നു പറയുന്നത് എൻ്റെ സഹോദരനാണ് കാരണം എന്നു വച്ചാൽ അവൻ അത്രയ്ക്ക് വരയ്ക്കും കാരണം നമ്മുടെ അമ്മ നമ്മുടെ പുറത്തുനിന്ന് പഠിക്കാനൊന്നും ഡ്രോയിങ്ങ് പഠിക്കാനൊന്നും വിട്ടിട്ടില്ല പക്ഷേ നമ്മുടെ ചുറ്റും കാണുന്ന കാണുന്ന കുറേ കാര്യങ്ങളെ അതിനെ സ്വീകരിച്ചുകൊണ്ട് കലയിലേക്ക് വന്നൊരാളാണ് എൻ്റെ സഹോദരൻ സൊ അതുകൊണ്ടുതന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ എൻ്റെ സഹോദരൻ ആണ് അതുപോലെ തന്നെ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കരെ ഇഷ്ടമാണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഒരിക്കലും ആ ആ ഒരളവിലൊന്നും വരയ്ക്കാനായിട്ട് പറ്റത്തില്ല എങ്കിലും എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് ആ